ആ സാറേ നമസ്തേ അതെ അതെ സാറെ പറഞ്ഞാട്ടെ

സാറെ നമ്മുടെ ഇവിടേ കേരളാ സംസ്ഥാനത്തിൻ്റെ ലോട്ടറി ആണ് ഇവിടെ നമ്മൾ പൂർണമായിട്ടും ഇവിടെ വില്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അന്യ സംസ്ഥാന ലോട്ടറികളൊന്നുമില്ല കേരളത്തിൻ്റെതായ ലോട്ടറികളെ ഉള്ളു കേരളത്തിൻ്റെ ലോട്ടറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് സാധാരണക്കാരായ ആൾക്കാർ ഉപജീവനത്തിനായിട്ട് ഒരു വരുമാന മാർഗ്ഗമെന്ന നിലയിൽ കൊണ്ടുനടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കേരളാ ലോട്ടറി അതുപോലെ ഒരുപാട് സമ്മാനങ്ങളും പാരിതോഷികങ്ങളുമൊക്കെ അതുവഴിയായിട്ട് അനേകർക്കിന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും പറഞ്ഞാൽ ഇന്ന് കേരളത്തിൻ്റെ ഒരു മികച്ച ഒരൂ വരുമാന മാർഗ്ഗങ്ങളിലെ ഒരു വരുമാന മാർഗ്ഗമാണ് ലോട്ടറി എന്നുള്ളത് സാറിന് കൂടുതലായിട്ട് എന്തിനെക്കുറിച്ചാണ് അറിയാനായിട്ട് താല്പര്യപ്പെടുന്നത് സാറെ ഈ ലോട്ടറിയെ സംബന്ധിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ ലോട്ടറിക്ക് പൊതുവായിട്ട് ഒരൂ ക്ഷേമനിധി ബോർഡ് ഉണ്ട് ലോട്ടറി ക്ഷേമനിധി ബോഡുണ്ട് അതുവഴിയായിട്ട് ഇതിനകത്ത് സ്ഥിരം അംഗത്വം എടുത്തുകൊണ്ട് ക്ഷേമനിധി ചേർന്ന് കഴിഞ്ഞാൽ മാസം വർഷത്തിൽ ഒരു പെൻഷൻ കിട്ടുന്ന മേഘലയിലേക്ക് അത് ഒരു വരുമാനമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അതുകൂടാതെ ഈ ലോട്ടറിയെന്ന് പറയുമ്പോൾ അത് ഒരു നിശ്ചിത കമ്മീഷൻ വെച്ചിട്ടാണ് നമ്മളത് വില്പനയ്ക്കായിട്ട് പ്രമോഷൻ ചെയ്യുന്നത് അത് വഴിയും ഒരു ലാഭം ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഇത് ഏജൻസികൾക്ക് കൊടുത്തുകൊണ്ടാണ് ഇത് നമ്മൾ പ്രൊമോട്ടർമാരെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കിന്നത് അപ്പം ഏജൻസിയിൽ നിന്ന് എടുക്കുമ്പോൾ അവർക്ക് ഏജൻസി വഴിയായിട്ടും ഒരു ലാഭ വിഹിതം ലോട്ടറിയുടെ ഭാഗത്തുനിന്ന് അത് തിരഞ്ഞെടുത്ത് വിൽക്കുന്ന ആൾക്കാർക്ക് നൽകപ്പെടുന്നുണ്ട് പിന്നെ അടിക്കുന്നതിൻ്റെ പ്രൈസിൻ്റെ അടിച്ചുള്ള അടിസ്ഥാനമാക്കിയുള്ള സമ്മാനത്തുകയുടെ ഒരു വിഹിതവും ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ട് വിൽപ്പനക്കാരായി നിൽക്കുന്നവർക്ക് നൽകപ്പെടുന്നുണ്ട് അതുകൂടാതെ ആകർഷകമായ ഒരുപാട് സമ്മാനങ്ങൾ ലോട്ടറി വഴിയായിട്ട് നൽകപ്പെട്ട് കൊണ്ടിരിക്കയാണ് അതായത് ഓരോ നമ്മുടെ ആഘോഷപരമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഓണം വിഷു ക്രിസ്തുമസ് ഉണ്ട് ഉണ്ട് ഉണ്ട് സാറിന് ഈ എന്താണ് ഇതിനകത്ത് തുടങ്ങാനാണോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് സാറെ കാരുണ്യയെന്നും പറഞ്ഞിട്ട് ഒരു ലോട്ടറി നമുക്കൊണ്ട് അതിൻ്റെ മുഴുവൻ ലാഭവിഹിതവും നമ്മൾ സാധാരണക്കാരായ രോഗികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വച്ചിരിക്കുകയാണ് വേറെയെന്തെങ്കിലും വിശദമായിട്ട് അറിയാനുണ്ടോ സാറേ ശരി സാറേ താങ്ക് യു